രണ്ട് ദിവസം മുൻപ് എൻ്റെ അയൽക്കാരൻ ഒരാള് താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞു പോയി വേഗം ഫസ്റ്റ് എയ്ഡ് ചെയ്തു ചെയ്തിട്ട് ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ ഹോസ്പിറ്റലിലേയ്ക്ക് കൊണ്ടുപോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സറെ എടുക്കണമെന്ന് എക്സറെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ കയ്യിലും കാലിലും പൊട്ടലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങള് അവരാരും ഡോക്ടർ ഞങ്ങളോട് നിർദേശിച്ചത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം എന്നെന്നാണ് അപ്പോൾ ഞങ്ങൾ അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തു അതിന് അറിയിച്ചോ പിന്നെ ഡോക്ടർ എത്രയും വേഗം ചെയ്താലെ മാറുള്ളു ഇല്ലെങ്കിൽ ഫ്രാച്ചർ വേഗം മാറില്ലാന്നന്ന് പറഞ്ഞു ഞങ്ങള് അതിന ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞു അതിന് വേണ്ടിയ നടപടികൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ അയാൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പതുക്കെപ്പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടെ ഉള്ളു ഇനി ഒരു മാസം എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ